ഞാൻ ഈ ഇടക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടീട്ട് ഓൺലൈനീന്ന് നല്ലൊരു ഷർട്ട് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അത് ബ്രാൻഡഡ് ഷർട്ട് തന്നെയാണ് ഓർഡറ് ചെയ്തത് മെറൂൺ കളർ ഷർട്ടാണ് ഓർഡറ് ചെയ്തത് നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളും നല്ല ഡിസൈനും കാര്യങ്ങളും ഉണ്ട് നല്ല ഫ്ലെക്സിബിൾ ക്ലോത്ത് ആയിരുന്നു കോട്ടൻ മിക്സിന്റെ ആയിരുന്നു ഓർഡറ് ചെയ്തത് അപ്പൊൾ വാഷബിൾ ആണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലായിട്ട് തോന്നി റേറ്റും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഒന്നിപ്പോ ഇപ്പോൾ നല്ല സൈസ് തന്നെയാണ് ഫിറ്റാണ് പ്രശ്നോന്നുല്ല ഓവർ ടൈറ്റായിട്ടൊന്നും ഇല്ല ഏകദേശം ഓ ഓൺലൈൻ മൊത്തം നോക്കണ് വരുമ്പോൾ എനിക്ക് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് തോന്നിയത്